ജോലിയിൽ നിന്നുള്ള സ്ട്രെസ്സ് മാറാനായിട്ട് അവധി കിട്ടുന്ന ദിവസങ്ങളിൽ പൊതുവേ ഫുട്ബോൾ കളി അതുപോലെ ഗെയിമിംഗ് പിന്നെ ഫോട്ടോഷൂട്ട് അതുപോലുള്ള പ്രോഗ്രാമിലൊക്കെ കൂടുതൽ പോകാറുണ്ട് ഈ ഫുട്ബോൾ കളിയൊക്കെ കഴിയുമ്പോൾ ഒരുപാട് സ്ട്രെസ്സ് കുറയ്ക്കാനും അതുപോലെ തന്നെ നമുക്ക് കൂട്ടുകാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ഗെയിമിംഗ് സ്കില്ല് ഇതൊക്കെ നമുക്ക് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ ഫുട്ബോൾ കളികൊണ്ട് പറ്റും മാത്രമല്ല ഒരു വളരെ നല്ലൊരു ഗെയിമാണ് ഫുട്ബോള് കളി അതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗഹൃദങ്ങളും അതുപോലെ തന്നെ പുതിയ പുതിയ ബന്ധങ്ങളും ഒക്കെ അതിൽനിന്ന് തന്നെ ഉണ്ടാക്കാനും കൂടുതൽ ഗെയിമിംഗ് സ്കില്ല് നമ്മുടെ ആരോഗ്യത്തിന് ഒക്കെ വളരെ നല്ലതാണ് ഈ ഓടുക ചാടുക ഈ കൂട്ട് പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ പിന്നീട് മെയിനായിട്ടും പിന്നെ എന്ന് പറയാനായിട്ടുള്ളത് ഇതുപോലെ ഗെയിമിംഗ് ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് ഗെയിമിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗെയിമിംഗ് നമുക്ക് മാറ്റാനായിട്ട് ഗെയിമിംഗ് എന്ന് പറയുന്ന സ്ട്രെസ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നമുക്ക് മറ്റേ ഗെ ഫോൺ ഗെയിം ഒക്കെ കളിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഫോട്ടോ ഷൂട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുക അതിപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള ഹോബികളാണ് മെയിനായിട്ടും അപ്പം മെയിനായിട്ടും എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഫുട്ബാൾ കളിയാണ് ഫുട്ബോള് കളിക്കുമ്പം നമുക്ക് നമ്മുടെ സ്കില്ലും അതുപോലെ തന്നെ ആരോഗ്യവും ഒക്കെ നമുക്ക് അതു വഴി നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് മെയിനായിട്ടും ചെയ്യുന്ന ഹോബികളൊക്കെ ഉള്ളത് പിന്നെ ഡ്രൈവിംഗ് ഡ്രൈവിങ്ങും എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾടെ ഡ്രൈവിംഗ് സ്കില്ല് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് യാത്രകൾ പോകുക ഇതൊക്കെ പ്രത്യേകിച്ച് ബൈക്ക് റൈഡ് അതുപോലെ ബൈക്ക് റൈഡ് ഒക്കെ വളരെ നമുക്ക് സ്ട്രെസ്സ് അതുതന്നെ ഒരുപാട് എന്താ പറയാ ഓർമ്മകളും ഫീലിങ്സും ഒക്കെ തരുന്ന മറ്റൊരു ഹോബിയാണ് ഈ യാത്രകൾ ട്രാവൽ ചെയ്യുക അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഹോബികളാണ് മെയിനായിട്ടും വരുന്ന ഹോബികളാണ് ഈ ട്രാവല് ഒക്കെ ഉള്ളത്